സർക്കാരിൻറ്റെ പദ്ധതികളായ തൊഴിലുറപ്പ് പദ്ധതി മഴസ മഴ വെള്ള സംഭരണി പദ്ധതി അങ്ങനെ ഈ രണ്ട് പദ്ധതികളാണ് എൻറ്ററിവിലുള്ളത് രണ്ട് പദ്ധതികളും വളരെ ആളുകൾക്ക് വളരെ പ്രയോജനകരമാണ് തൊഴിലുറപ്പിലൂടെ തൊഴിൽ തൊഴിലില്ലാത്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ പോലെ ജോലി ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ് അതിലൂടെ അവർക്കൊരു വളരെ ഒരു വലിയ സഹായമാണത് മഴ വെള്ളം സംഭരണി പദ്ധതിയിലൂടെ അനേകം വീടുകളിൽ മഴ വെള്ളം സംഭരണി വെക്കുകയും മഴ വെള്ളം സംഭരണം മഴ വെള്ളം സംഭരിച്ച് അത് പ്യൂരിഫൈ ചെയ്ത് കുടിവെള്ളത്തിനായിട്ടും അങ്ങനെ മറ്റ് കാര്യങ്ങൾക്കായിട്ടും വെള്ളം ഉപയോഗിക്കുന്നതായിട്ടും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് മഴ വെള്ളം സംഭരണി ആയിട്ടുള്ള പദ്ധതി ഈ രണ്ട് പദ്ധതികൾ രണ്ട് പദ്ധതികളും വളരെ ഉപകാരപ്രദമാണ് എല്ലാവർക്കും